സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും മുദ്ര ലോൺ പോലെയുള്ള പദ്ധതികൾ ഒരുപാട് കിട്ടുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു അവസ്ഥ ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അത് ഏത് മേഖലയിൽ ആണെങ്കിലും അത് ടെക്നോളജി മേഖലയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭക്ഷ്യ മേഖലയാണെങ്കിൽ അങ്ങനെ അങ്ങനെ പലരീതിയിലുള്ള പരി പരിഗണനകളും കാര്യങ്ങളും സർക്കാർ നൽകുന്നുണ്ട് ഒരുപാട് പദ്ധതികൾ സർക്കാർ ആവിഷ് ആവിഷ്കരിക്കുന്നുണ്ട് പല കമ്പനികളെയും കേരളത്തിലോട്ട് കൊണ്ട് വന്ന് അവരുടെ കൈയിൽ നിന്നും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഒരുപാട് പേര് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് വിദേശ കമ്പനികളിൽ ഒരുപാട് പേർ നിക്ഷേപം വാങ്ങി കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള സാദാ ഇന്ത്യയിലുള്ള സാധാരണ ചെറുകിട കമ്പനികളെ ഉയർത്തികൊണ്ട് വരാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ലോണുകളും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ലോൺ പല സംരംഭകർക്കും യുവ സംരംഭകർക്ക് ഒക്കെ ലോൺ കാര്യത്തിൽ പല ഇളവുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്